നടുവേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ടിപ്പം നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഈ ആയുർവേദ വൈദ്യന്മാരെ ആശ്രയിക്കുകയാണ് കൂടുതലും നാട്ടുവൈദ്യൻ നാട്ടിൽ നാൾ കണ്ടുവരുന്നത് ഗ്രാമങ്ങളിൽ കണ്ടുവരുന്നത് അപ്പം നാട്ടുവൈദ്യങ്ങളിൽ ചെയ്യുന്ന ചില ആൾക്കാർ ചില ആൾക്കാരിങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചിടുക അല്ലെങ്കിൽ എന്താ പറയുക പിടിച്ചിടുക എന്നൊരു പ്രയോഗം ഉണ്ട് അതോടൊപ്പം തന്നെ കൂടുതലും മറ്റ് കിടത്തി അല്ലെങ്കിൽ ഓരോ ഞവരക്കിഴി പിടിക്കുന്ന അങ്ങനെ കിഴി പിടിക്കുന്നുള്ളൊരു ചികിത്സാരീതി നാട്ടിൽ പ്രാബല്യത്തിലുണ്ട് അതായത് ഏഴ് ദിവസം കിഴി പിടിക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം കിഴി പിടിക്കുക അപ്പം അതിന് പൊതുവെ ആയുർവേദ ചിട്ട പ്രകാര ചിട്ട പ്രകാരം അവരു നടത്തുന്ന നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ചില പദ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് നോൺ വെജിന്നത് ചിലത് പാടില്ല അല്ലെങ്കിൽ മസാല കൂട്ടുകൾ കാര്യങ്ങളും ഒക്കെ കറികളിൽ പാടില്ല അവർക്ക് ഇപ്പം അതിനോടൊപ്പം ഇതിൽ കിഴി പിടിക്കുന്നതിലിപ്പം ആദ്യത്തെ മൂന്ന് ദിവസം ഞവരക്കിഴി പിടിക്കുകയെന്ന് പറയും അത് ആദ്യത്തെ മൂന്ന് ദിവസം ധാന്യക്കിഴി പിടിക്കുകയെന്ന് പറയും അതിനുശേഷം രണ്ടാമത്തെ പിന്നെയുള്ളത് ബാക്കി ഏഴ് ദിവസങ്ങളിൽ ഞവരക്കിഴി പിടിക്കണം പിടിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ ഓരോ ഈ സമയങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസത്തിൽ വേണ വേണമെങ്കിൽ നോൺ വെജാകാം ആകാമെന്നാണ് ഇതിൽ ഒരു പറയും പറയുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ ദിവസങ്ങളിൽ ഞവരക്കിഴി പിടിക്കുമ്പോൾ ആയുർവേദം പച്ചക്കറി മാത്രം ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ ഈ ഇതിന് ശേഷം ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് എല്ലാം ഇതാണ് പൊതുവെ കണ്ട് വരുന്നൊരു പ്രയാസ ചികിത്സാരീതികൾ ഒക്കെ ഇപ്പം ഇപ്പം നടുവേദനയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും എന്ന് പറയുമ്പം നടുവേദനയിൽ നട്ടെല്ലിൽ സെർവിക്കൽ കഴുത്തിന് ആണെങ്കിൽ സെർവിക്കൽ വെർട്ടിബ്രായിൽ ഡിസ്കിന് പല തരത്തിലുള്ള ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊക്രൂഷൻ അതുപോലെ താഴേക്ക് വരുമ്പോൾ തൊറാസിക് വെർട്ടിബ്ര അതുകഴിഞ്ഞ് ലംബാർ ലംബാറിലാണ് ലംബാറാണ് നടുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ലംബാറ് വെർട്ടിബ്ര എടുക്കുമ്പോൾ അവരുടെ അത് ഇതുപോലെതന്നെ ഡിസ്ക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുക അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള അതിന് ഡിസ്കിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ വീക്നെസ് കൊണ്ടാണ് ഇത് പുറത്തേക്ക് തള്ളി തള്ളി വരുന്നത് അപ്പം അതിന് ഈ അതിൻ്റെ ഇപ്പോൾ ഈ നട്ടെല്ലിന് ചുറ്റുമുള്ള മസിൽസിനെ ബലപ്പെടുത്തുകയാണ് പൊതുവെ ഇവർ ആയുർവേദത്തിൽ ആദ്യം ചെയ്തു വരിക കാരണം അല്ലാതെ ഇപ്പം ഈ നടുവിൽ ചുറ്റുമുള്ള മസിൽസിന് ബലം ബലമുണ്ടാകുമ്പോൾ ഈ പുറത്തേക്ക് തള്ളി വരുന്ന കുറച്ച് കുറയും അപ്പം അകത്തേക്ക് പോയിട്ട് പോവുകയോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തള്ളിവരാതിരിക്കാൻ ഉള്ള ഇതുണ്ടാവും അപ്പോൾ ഈ ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളി വരുമ്പോൾ ഉണ്ടാകുന്നത് അതിന് ചുറ്റും ഒരുപാട് നെർവ്സ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നെർവ്സ് കംപ്രഷനാകുമ്പോഴാണ് ഒരുപക്ഷെ ലോവർ ലംമ്പിൽ കാലിന് വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ കൈകൾക്ക് വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് അപ്പം ചിലത് നെർവിനെ കൂടുതൽ കംപ്രഷനുണ്ടാകുന്ന അനുസരിച്ച് കൂടുതൽ കംപ്രഷനുണ്ടാകുന്ന അനുസരിച്ച് കാലുകൾക്ക് മരവിപ്പ് കൈകൾക്ക് മരവിപ്പ് കൈ ഉയർത്താൻ സാധിക്കാതിരിക്കുക അതുപോലെതന്നെ കാല് എടുത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കാതിരിക്കുക അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പല തരത്തിലുള്ള വിധാനപരിവർജ്ജനം അതുപോലെതന്നെ സ്നേഹഹസ്വതപ്രയോഗം അതുപോലെതന്നെ അവഗാഹസ്വേതം അതുപോലെതന്നെ പിച്ചു വീരേശനം കടിവസ്തി പൃഷ്ഠവസ്തി മറ്റു വസ്തുക്രമങ്ങൾ ഇത്തരം പല കാര്യങ്ങൾ വസ്തിയെന്ന് പറയുമ്പോഴത്തേക്ക് വസ്തിയെന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഈ ഒരു തളം കെട്ടി അതിനകത്ത് ഓഹ് അവരുടെ എണ്ണ ചൂടാക്കി കുറച്ചേരം പിടിച്ച് നിർത്തുന്നതിനെയാണ് വസ്തി എന്നു പറയുന്നത് അപ്പോഴത്തേക്കും നമുക്ക് അവഗാഹസ്വേതം അതുപോലെ ഈ വസ്തിലതാണ് ചെയ്യുക അതാണ് വസ്തിയിൽ വരുമ്പം നല്ല മാറ്റങ്ങളുണ്ടാവും